ചിത്രകല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല അത് കഴിവാണ് അങ്ങനെ ഒരു കഴിവ് ഉണ്ടായാൽ അത് വികസിപ്പിച്ചുകൊണ്ടുവരാൻ നമ്മൾ നിരന്തരം പരിശീലിക്കണം അതിനുവേണ്ടി നല്ല ഒരു കലാകാരൻ്റെ അടുത്ത് ശിക്ഷണം സ്വീകരിക്കണം എന്ത് ചിത്രവും ആയിക്കോട്ടെ ആദ്യം നമുക്ക് വിജയം കാണാൻ സാധിക്കില്ല നിരന്തരമായി പരിശീലനത്തിലൂടെ മാത്രമാണ് നമുക്ക് ചിത്രരചയിതാവ് ആകാൻ സാധിക്കൂ അതിനുവേണ്ടി ഒത്തിരി കലാകാരന്മാരുടെ ചിത്രങ്ങൾ കാണാം അതിൻ്റെ ആ ആശയം മനസ്സിലാക്കി ഇരിക്കണം ഒരു ചിത്രം കണ്ടാൽ നമുക്ക് എന്തുതോന്നും ഓരോ ചിത്രവും ഒത്തിരിയേറെ കഥകൾ നമുക്ക് പറയാനുണ്ടാകും അത് മനസ്സിലാക്കണം എങ്കിൽ നമ്മൾ ഒരു നല്ല ഒരു ചിത്രകാരൻ ആയിരിക്കും